ടെക്സ്റ്റ് ടു സ്പീച്ച് പ്രവർത്തനങ്ങള് നമ്മള് ചെയ്യുന്ന സമയത്ത് പ്രായമായവർക്കൊക്കെ അത് നല്ലതാണ് നമ്മളിപ്പോൾ കാഴ്ച ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാനും വായിക്കാനും അറിയാണ്ടൊക്കെ നമ്മള് ഇരിക്കുമല്ലോ അപ്പോൾ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്തു കൊടുക്കാനൊന്നും നമുക്കറിയില്ല അപ്പോൾ നമുക്ക് എന്താണോ പറയാനുള്ളത് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറെ ആപ്പുകൾ ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ടെക്നോളജി എന്ന് പറയുന്ന സാധനമൊക്കെ വളർന്നപ്പോൾ ഇങ്ങനെയുള്ള കുറെ ഉപകാരങ്ങളൊക്കെ നമുക്ക് കിട്ടി അല്ലേ അതായത് നമുക്ക് എഴുതാനും വായിക്കാനും അറിയാത്തവർക്കും കാഴ്ചയില്ലാത്തവർക്കൊക്കെ നമുക്കെന്താണ് മറ്റുള്ളവരിലേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ എന്താണ് പറഞ്ഞുകൊടുത്താൽ മതി അത് തനിയെ എന്ത് ചെയ്യും അവിടെ ഇങ്ങനെ എഴുതിയ രൂപത്തിൽ വരും അപ്പോൾ എഴുതിയ രൂപത്തിൽ വരുമ്പോൾ നമുക്കത് നേരെ അയച്ചു കൊടുക്കാം അവർക്ക് അല്ലാതെ നമുക്ക് എഴുതാനറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ശരിക്കും എന്താണ് ടെക്നോളജി വളർന്നതൊക്കെ നല്ലത് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഒക്കെ പറ്റും നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണങ്കിലും നമുക്ക് പറയാം നമ്മൾ പറയുന്നത് എപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കണോ മലയാളത്തിൽനിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കണോ അതിനി വേറെ ഭാഷയിലേക്കൊക്കെ ആക്കണോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഫോൺ വഴികളൊക്കെ ഫോണ് വഴി ഉപയോഗിച്ച് ചെയ്യാം ടെക്നോളജി ഒക്കെ വളർന്നപ്പോൾ നമുക്ക് ഈ വയസ്സായവര് പോലും എന്നെപ്പോലെ വയസ്സായവര് പോലും എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നല്ലതാണ് ടെക്നോളജി വളർന്നതൊക്കെ നല്ലതു തന്നെയാണ് ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണത് മാറ്റങ്ങളൊക്കെ വേണ്ടതാണ് ഇപ്പോൾ ടെക്നോളജി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേറെ ആരുടെയും സഹായമോ അല്ലെങ്കിൽ ഒരു പുറത്തുപോയി കാശു കൊടുത്തിട്ട് അത് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒന്നും ഇല്ല വീട്ടില് നമുക്കറിയുന്ന നമ്മളെ സഹായിക്കണ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ വീട്ടുകാരുടെ സഹായത്തോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ടു കൊണ്ടുപോകാൻ പറ്റണത് അപ്പോൾ ഇനി എത്ര വലിയ കാര്യങ്ങൾ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചെറിയ ചെറിയ കാര്യ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് അതുതന്നെയാണ് ശരിക്കും വലിയൊരു കാര്യമാണ് സാങ്കേതികവിദ്യ കൊണ്ടുവന്നത് കൊണ്ടും നമ്മുടെ മൊബൈൽ ഫോണിന്റെ കണ്ടുപിടിത്തം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടായത് മൊബൈൽ ഫോണല്ലാ ഇപ്പോൾ ലാപ്ടോപ് വഴിയും കമ്പ്യൂട്ടറ് വഴിയുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്